ഡിജിറ്റൽ ആർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പം എല്ലാവരും ഡിജിറ്റൽ ആർ ആർക്ക് ആർട്ടിലേക്കാണ് കൂടുതലായിട്ട് താത്പര്യപ്പെടുന്നത് ഒന്ന് പണ്ടത്തെ പോലെ എന്താണ് മനുഷ്യനിർമ്മിത കലകളാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുത്ത് അതൊരുപാട് എന്താണ് പരിശീലനം ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോൾ ഗുരുക്കന്മാരുടെ കീഴിലാണ് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അതിന് അതിന്റേതായിട്ടുള്ളൊരു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം എളുപ്പമാണ് പെട്ടെന്ന് നമുക്കെല്ലാം നമ്മുടെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും വരച്ചെടുക്കാൻ പറ്റുന്ന രീതിലൊക്കെ അല്ലേ ഇന്ന് ആർട്ട് മാറിയിട്ടുണ്ട് അപ്പോ നല്ല വർക്കിൽ തന്നെയാണ് നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടന്ന് എളുപ്പം കിട്ടുകാന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ കല എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നശിപ്പിക്കാനുള്ളതല്ല അപ്പ നമ്മള് എന്താണ് ചെയ്യേണ്ടത് ആ പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു സമയമെടുത്ത് അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഇപ്പം എല്ലാം പിന്നെ ഡിജിറ്റലി ആയത് കൊണ്ട് ഡിജിറ്റൽ ആയിട്ട് ചെയ്താൽ പെട്ടെന്ന് എന്താണ് വിറ്റഴിക്കുക ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താ ഗതിയിലേക്കൊരു ബിസിനസ്സ് മൈൻഡ് എല്ലാവരിലേക്കും ഇതിൻ്റെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു മനുഷ്യ നിർമ്മിത കല തന്നെയാണ് പണ്ടത്തെ കലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യവും ഇല്ലാതെ നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക അപ്പം അത് നല്ല രീതിയിൽ എന്ത് ചെയ്തോളും അത് ചെയ്തോളും നമ്മൾ നമ്മടെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ താത്പര്യവും എല്ലാം എന്ത് ചെയ്യും അതിലേക്ക് വരുന്ന സമയത്താണല്ലോ നല്ല രീതിയിൽ കലകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ മനുഷ്യ നിർമ്മിത കലയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്താൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്